ഞങ്ങളുടെ പ്രദേശത്ത് ധാരാളം രാഷ്ട്രീയ പാർട്ടികള് ഉള്ളൊരു പ്രദേശമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി പി ഐ എം സി പി ഐ കേരളാ കോൺഗ്രസ് ബി ജെ പി സി എം പി എൻ സി പി അങ്ങനെ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതാക്കളും ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അവരുടെ അജണ്ട ജനക്ഷേമവും ഇതോക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് കണക്കൊന്നുമല്ല നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സർക്കാരിൻ്റെ പല ജനക്ഷേമകരമായ പദ്ധതികള് പ്രയോജനപ്രദമാക്കുവാൻ ഈ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് പല ധാരാളം വഴികളും വഴിവർക്കുകളും പാലത്തിൻ്റെ വർക്കുകളും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഇവരെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എം പി എം എൽ എ ഫണ്ടുകള് വിനിയോഗിച്ച് ധാരാളം വർക്കുകൾ ഞങ്ങളുടെ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെതന്നെ നമ്മള്ക്ക് ഒരു അതുപോലെന്നെ നമുക്കൊരു എം പി ഫണ്ട് ലഭിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ നമ്മുടെ നേതാക്കന്മാര് ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അത് സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇതിലൂടെ മറ്റൊന്ന് സർക്കാരിൻ്റെ ഈപ്പം ഒരു സർക്കാരിൻറ്റേ സർക്കാരിൻറ്റേ ഒരു സഹായത്തോടുകൂടി നടത്തുന്ന പല പദ്ധതികളും അവ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സഹായത്തോടുകൂടി നമ്മുടെ നാട്ടില് കൊണ്ടുവരാൻ കല്ല് കെട്ട് അതുപോലെതന്നെ പൈപ്പ് ലൈൻ പൈപ്പ് വെള്ളം എലക്ട്രിസിറ്റി ഇതൊക്കെ ഇല്ലാത്ത പ്രദേശങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ പ്രദേശങ്ങളെത്തിക്കാൻ രാഷ്ട്രീയപാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലുകൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ പാസ്പോർട്ട് ഇതുപോലെയുള്ള വെരിഫിക്കേഷൻ സമയത്ത് പോലീസ് വെരിഫിക്കേഷനൊക്കെ എം പിമാരുടെ പരിചയപ്പെടുത്താനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി സാധിക്കുന്നു പിന്നെ സ്കൂളുകള്ക്ക് ഒക്കെ ചുറ്റുമതിലും ഗ്രൗണ്ട് കെട്ടുന്നതിനുമൊക്കെ ഫണ്ടുകള് അനുവദിച്ച് ധാരാളം വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ സഹകരണത്തോടെ സാധിച്ചിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴികള് ഇതിന്റെയൊക്കെ പണികഴിപ്പിക്കാൻ രാഷ്ട്രീയപാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലുകൊണ്ട് നാടിന് സാധിക്കുന്നുണ്ട് കാർഷിക മേഖലയിലും ധാരാളം ഇടപെടലുകള് നടത്താൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരിണിതഫലമായി നെല്ല് സംഭരണം സിവിൽ സപ്ലൈസ് വകുപ്പിൽനിന്ന് ഏറ്റെടുപ്പിച്ച് ചെയ്യിക്കാനും അതുപോലെതന്നെ അതുവഴി മറ്റ് ബിനാമികളുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ സഹായിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ധാരാളം സബ്സിഡികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഇടപെടൽമൂലം സബ്സിഡികൾ കർഷകർക്ക് അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽനിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധിയായ ധാരാളം കാര്യങ്ങൾ നാട്ടില് ചെയ്യിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രശ്നം ഉണ്ടായാൽ ഒരു പോലീസ് ഇടപെടൽ പെട്ടെന്നുണ്ടാകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയുമൊക്കെ ഇടപെടലുകൊണ്ട് അത് ധാരാളമായി നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല അടിപിടി കേസുകള് അതുപോലെയുള്ള കേസുകളില്നിന്നൊക്കെ പെട്ടെന്ന് പോലീസ് ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ പാർട്ടികളില് ഇടപെടല് സഹായകരമാകുന്നുണ്ട് പിന്നെ ഒരു പഞ്ചായത്തിലോ സർക്കാർ ഓഫീസുകളിലോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബന്ധപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലിലൂടെ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ സഹായത്താൽ സാധിച്ചുകിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്